ഞാൻ ആമസോൺ പ്രൈം ഉപയോഗിച്ച് സിനിമകൾ കാണാറുണ്ട് നെറ്റ്ഫ്ലിക്സിലും സിനിമകൾ കാണാറുണ്ട് ഇത് നമ്മുടെ നമുക്ക് പുതിയതായിട്ട് പുതിയതായിട്ട് തീയേറ്ററിൽ ഇറങ്ങിയ സിനിമ വളരെ പെട്ടെന്ന് കാണാനും അത് നമ്മുടെ കേബിൾ ടീവിയിൽ കിട്ടാൻ സാധ്യത കുറവാണ് കിട്ടും അത് മിനിമം ഒരു ആറ് മാസമോ എട്ട് മാസമോ ഒരു കൊല്ലമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കേബിൾ ടീവിയിൽ കിട്ടുന്നത് പക്ഷേ ആമസോൺ പ്രൈം പോലത്തെ സംവിധാനങ്ങളിൽ ഇത് വളരെ പെട്ടെന്നു തന്നെ നമുക്ക് കിട്ടും തീയേറ്ററിൽ കൊണ്ടുപോ തീയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യം ഇപ്പോളത്തെ സംവി ഇപ്പോളത്തെ അവസ്ഥയിൽ കുറഞ്ഞു വരികയാണ്